ഇപ്പോൾ ഭാവിയിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ മലയാള ഭാഷയുടെ അധപ്പതനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മലയാളം സംസാരിക്കുന്നത് പോലും അപൂർവമായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇപ്പം താഴ്ന്ന ജാതിയിലുള്ള ഈ ആദിവാസി വിഭാഗത്തിൽ പെട്ടവർ തന്നെ മലയാളത്തിൽ സംസാരിക്കുന്നത് തന്നെ അപൂർവമായിട്ടാണ് കാരണം അവർ അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയുന്നു നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് പറയുന്നത് പിന്നെ വലിയ മുതിർന്ന ജാതിക്കാരൊക്കെയാണെങ്കിൽ അവർ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രാമിൺസ് അവർ എങ്ങനെ ആണെന്ന് വെച്ചാൽ തമിഴാണ് കൂടുതലായിട്ടും സംസാരിക്കുന്നത് അപ്പം മലയാള ഭാഷ അങ്ങനെ ആരും സംസാരിക്കുന്നില്ല പിന്നെ മുതിർന്ന ഏറ്റവും നല്ല മുന്തിയ ആൾക്കാരൊക്കെ എന്ന് ഒക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവർ കൂടുതലായിട്ടും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കൂടികലർത്തി ഉള്ള മലയാളം അങ്ങനത്തെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അപ്പം മലയാള ഭാഷയെ നമ്മൾ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒത്തുകൂടി ചെന്നാൽ നിന്നാൽ മാത്രമേ നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പം മലയാള ഭാഷയെ സംരക്ഷിക്കണമെങ്കിൽ എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന് മലയാളത്തെ പ്രോത്സാഹിപ്പിക്കും മലയാളത്തിൽ എന്തെങ്കിലും പരിപാടികൾ നടത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് മലയാള ഭാഷയെ വല്ലാണ്ട് പ്രോത്സാഹിപ്പിക്കാനും പുതിയ തലമുറയ്ക്ക് എല്ലാം കൊണ്ട് അവർക്ക് ഒരു പ്രചോദനമായിട്ട് തീരും അപ്പോൾ അങ്ങനെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്